പരമ്പരാഗത അവസരങ്ങളിൽ നൃത്തം ചെയ്യുകയെന്ന് പറയുമ്പോള് പരമ്പരാഗത നൃത്തങ്ങളെന്ന് പറയുമ്പോള് തന്നെ അത് തിരുവാതിരാ മാർഗ്ഗംകളി കഥകളി നാടോടിനൃത്തം അങ്ങനെ പരമ്പരാഗതമെന്ന് പറയുമ്പോള് തന്നെ തിരുവാതിര മാർഗ്ഗംകളിയാണ് ഏറ്റവും മെയിനായിട്ടു നില്ക്കുന്നത് പിന്നെ മോഹിനിയാട്ടം ഭരതനാട്യം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ അതിൻ്റെ ഡ്രസ്സിങ്ങ് എന്നൊക്കെ പറയുമ്പോള് വസ്ത്രങ്ങള് ധരിക്കുന്നത് ഇപ്പം തിരുവാതിരയെന്ന് പറയുമ്പോള് തന്നെ ഹിന്ദുക്കളുടെ ഒരു രീതി ആചാരങ്ങളുടെയൊക്കെ ഒരു രീതിയാണ് തിരുവാതിരകളി കൊണ്ടുദ്ദേശിക്കുന്നത് ഇപ്പോള് തിരുവാതിരയ്ക്കെന്ന് പറയുമ്പോള് തന്നെ ഒരുപാട് ഉറക്കമിളച്ചുള്ള രാത്രികളില് എല്ലാവരും ഒത്തുചേരുമ്പോള് അങ്ങനെ കളിക്കുന്നൊരു കളിയാണ് തിരുവാതിര തിരുവാതിരയ്ക്കെന്ന് പറയുമ്പോള് സെറ്റ് സാരി സെറ്റുമുണ്ട് പോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് കസവുമുണ്ട് ഇപ്പോള് അതില് അങ്ങനെയുള്ള ഡ്രസ്സുകളാണ് ഏറ്റവും കൂടുതലും ധരിക്കുന്നത് അപ്പം മാർഗ്ഗംകളി എന്നുപറയുമ്പോള് ക്രിസ്ത്യൻസിൻ്റെ ഒരു ആചാരരീതിയാണ് മാർഗ്ഗംകളി മാർഗ്ഗംകളിയെന്ന് പറയുമ്പോള് അവരുടേതായ രീതികളില് നല്ല ഇണങ്ങിയും വഴങ്ങിയും കളിച്ച് നല്ലൊരു ഭംഗിയാണ് കാണാനും കളിക്കുന്നത് കാണുവാനും നല്ലൊരു ഭംഗിയാണ് അപ്പോള് അതിന് ധരിക്കുന്ന വസ്ത്രങ്ങളെന്ന് പറയുമ്പോള് എന്താണ് പറയുക ചട്ടയും മുണ്ടും അങ്ങനെയുള്ള പട്ടു വസ്ത്രങ്ങളൊക്കെയാണ് മാർഗ്ഗംകളിക്ക് ധരിക്കുന്നത് അപ്പോള് അവരുടെ ആഭരണങ്ങളുടെ പേരൊന്നും എനിക്ക് അങ്ങനെ അറിയില്ല എന്നാലും വസ്ത്രങ്ങള് ഇതൊക്കെ തന്നെയാണ് അപ്പം കഥകളിക്കാണെങ്കിലും കഥകളിയുടെ രീതിയിലുള്ള വസ്ത്രങ്ങള് പിന്നെ നാടോടിനൃത്തത്തിന് നാടോടികളുടെ ആ ജസ്റ്റൊന്ന് ഒരു ഇതിലുള്ളതാണ് നല്ല രീതിയില് ഒരുങ്ങി നല്ല ഭംഗിയിലൊക്കെ കളിക്കുന്നൊരു കളിയാണ് മോഹിനിയാട്ടമാണെങ്കില്പ്പോലും നല്ല ഭംഗിയാണ് നല്ല ഭാവങ്ങളെല്ലാം വരുത്തി അവരുടെ മുഖത്ത് നല്ല രീതിയിലുള്ളൊരു ഇതിലാണ് കളിക്കുന്നതും അപ്പോള് നൃത്തം കളിക്കുമ്പോള് അവരുടെ ഓരോ നൃത്തത്തിനും ഓരോ ശൈലിയും ഓരോ ഭംഗിയും ഓരോ ഓരോ അത് കാണുമ്പോള് തന്നെ നമുക്കൊരു അട്ട്രാക്ഷൻ തോന്നുന്ന രീതിയിലുള്ളൊരു കാര്യങ്ങളാണ് അങ്ങനെ തോന്നുന്നൊരു നൃത്തമാണ് ഈ പറഞ്ഞ തിരുവാതിര മാർഗ്ഗംകളി കൗതുകകരമായി കണ്ടിരിക്കാനായിട്ട് പറ്റുന്നൊരു നൃത്തരൂപമാണ് ഈ കഥകളി കഥകളിയാണെങ്കില്പ്പോലും കേരളത്തിൻ്റെ ഒരു കേരളീയ നൃത്തരൂപമാണ് അതിപ്പോള് അതിൻ്റെ ഭംഗിയെന്ന് പറയുമ്പോള് എല്ലാവർക്കും തന്നെ അറിയാമല്ലോ അപ്പോള് ഒരു രസമാണ് അധികം അധികം കാണാത്തൊരു ഇതാണ് നമുക്ക് പിന്നെ തിരുവാതിരയാണെങ്കില്പ്പോലും നമുക്ക് കണ്ടിരിക്കാൻ നല്ലൊരു ഭംഗിയുള്ളൊരിതാണ് എല്ലാവരും ഒത്തുചേർന്ന് കളിക്കുമ്പോള് തന്നെ ഒരു ഭംഗിയാണ് കളിക്കുന്നത് കാണാനും നൃത്തം ചെയ്യുന്നത് കാണാനും പിന്നെ മോഹിനിയാട്ടം മാർഗ്ഗംകളി മാർഗ്ഗംകളി അടിപൊളിയെന്ന് പറഞ്ഞുകഴിഞ്ഞാല് അടിപൊളി മാർഗ്ഗം കളിയെന്നൊക്കെ പറയുമ്പോള് ക്രിസ്ത്യൻസിൻ്റെ ഒരു ആഘോഷമാണ് ആഘോഷത്തിൻ്റെ ഒരു ഇതിലാണ് അവര് മാർഗ്ഗംകളി കളിക്കുന്നതുമൊക്കെ അപ്പോള് എല്ലാവരും ഒത്തുചേരുമ്പോഴുള്ളൊരു മാർഗ്ഗംകളിയെന്ന് പറയുമ്പോള് ഒത്തിരി എല്ലാവരും ഒത്തുചേർന്നൊരു അടിപൊളിയായിട്ടാണ് കളിക്കുക സെറ്റപ്പാണ് നല്ലൊരു ഭംഗിക്കൊക്കെയാണ് അവര് കളിക്കുന്നത് ഓക്കെ